എന്റെ അടുക്കളയിൽ കുറേ രീതിയിലുള്ള പാത്രങ്ങളുണ്ട് പ്രത്യേകിച്ച് അരി ചോറുണ്ടാക്കാൻ ഒരു പാത്രം പിന്നെ കറികളുണ്ടാക്കാൻ വേറെ പാത്രം ബിരിയാണി ഉണ്ടാക്കാൻ വേറെ പാത്രം അങ്ങനെ ഓരോ സാധനങ്ങൾക്കും ഓരോ പാത്രങ്ങളാണ് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉപയോഗിക്കുന്നത് കലം ആണ് കലത്തിലാദ്യം വെള്ളമൊഴിച്ച് ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് അരി ഇട്ട് അരിയൊന്നിളക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് വെന്ത് ചോറായിട്ട് മാറും പിന്നെയുള്ള പാത്രമെന്നു പറഞ്ഞാൽ സാമ്പാറൊക്കെ വയ്ക്കുന്ന കലമെന്നു പറഞ്ഞാൽ അത് വേറെയാണ് അതിൽ ആദ്യം കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ച് പിന്നതു മാറ്റി പിന്നെ മസാലയൊക്കെ ഇട്ടൊന്ന് കടുക് പൊട്ടിച്ച് എന്നിട്ടതിലേക്കിടും അങ്ങനെ സാമ്പാറൊക്കെയുണ്ടാക്കുന്ന കറികൾ ഉണ്ടാക്കുന്ന ഒരു പാത്രം പിന്നെ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുപയോഗിക്കുന്നതാണ് ചീനച്ചട്ടി ചീനച്ചട്ടിയിലാണ് നമ്മൾ തോരനൊക്കെ ഉപയോഗിക്കുന്നത് തോരൻ സദ്യവട്ടങ്ങളിലേറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നൊരു വിഭവമാണ് തോരൻ അതുകൊണ്ട് തന്നെ വീട്ടിലായാലും നമുക്ക് തോരനു വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതലാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിൽ പ്രഭാത ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും വേറെ വേറെ പാത്രങ്ങൾ നമ്മളുപയോഗിക്കുന്നത് പുട്ടിനു വേണ്ടിയിട്ടൊരു പുട്ടും കുറ്റിയും ഒരു പുട്ടും കുടവും ഉണ്ടാകും ആ പുട്ടു കുടത്തിലായിരിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക പുട്ടും കുറ്റിയിൽ നമ്മൾ ആ അരിപ്പൊടി വെള്ളം വച്ച് നനച്ച് പുട്ടിനെ കുതിർത്ത് പുട്ട് പൊടി തേങ്ങയും കൂട്ടി പുട്ട് കുറ്റിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇഡ്ഡലിപ്പാത്രം ഇഡലിപ്പാത്രമെന്നു പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഴികളുള്ള കുറേ കുറേ തട്ടുകളുണ്ടാകും അതിൽ എന്നിട്ട് തട്ടിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാവൊഴിച്ച് അങ്ങനെയാണ് ഇഡ്ഡലിത്തട്ടിൻ്റെ ഇരിക്കുന്നത് പിന്നീട് ദോശ ചുടാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലുണ്ടാകും ആ ദോശക്കല്ലെന്നു പറഞ്ഞാൽ ഒരപ്പത്തിൻ്റെ അത്രയും വലിപ്പത്തിലുള്ളൊരു ദോശക്കല്ല് അതിൽ തന്നെയാണ് നമ്മൾ അപ്പമുണ്ടാക്കാറ് പിന്നെ നമ്മൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി വെന്തിട്ട് കഞ്ഞിവെള്ളവും അതിലെ ചോറും വ്യത്യസ്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാർപ്പ് പാത്രം ഉണ്ടാകും കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ഒരു ചെമ്പുണ്ടാകും ചെമ്പെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാറ്റൊന്നും അകത്ത് കടക്കാത്ത ശരിക്കും അടച്ചിരിക്കുന്ന ഒരു ചെമ്പ്